നമ്മൾ ഒരാൾ എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഇപ്പം ഞാൻ ബാങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയാത്ത എന്തേലും കാര്യവാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പിന്നെ അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്കത് പറഞ്ഞ് തരാനുള്ള ടൈം ഇല്ല വെയിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇരിക്കുമോ എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഇരിക്കാൻ പോലും ഉള്ള സ്ഥലം ഉണ്ടാവില്ല നല്ല നീണ്ട ക്യൂ ഉണ്ടാകാറുണ്ട് പിന്നെ ജീവനക്കാർ എല്ലാവരും അല്ല ഒരു പരിധിവരെ നമ്മോട് നല്ലോണം പെരുമാറുന്ന ആളുകളുണ്ട് പക്ഷേ ചിലർ ചിലർ നമ്മളോട് മോശമായിട്ട് പെരുമാറാറുണ്ട് പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് എഴുതണമെങ്കിൽ പേപ്പറോ അവിടെ പേനയോ ഒന്നും കാണാറുണ്ടാകില്ല നമ്മൾ സാധാരണ നമ്മൾ കൊണ്ടുപോകാറുണ്ടെങ്കിലും ആ ചിലർ ചില സമയങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് അതൊന്നും കിട്ടാറില്ല ചിലവര് നല്ല സൗഹൃദത്തിൽ നമ്മളോട് സംസാരിക്കാറുണ്ട് പെരുമാറാറുണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ ഒക്കെ ചോദിച്ച ഉടനെ തന്നെ പറയാറുണ്ട് പക്ഷെ ഒരു ഒരു പരിധി വരെ ചിലവര് ഭയങ്കര പ്രശ്നങ്ങൾ ആണ് പിന്നെ അവിടെ ഇരിക്കാനോ വെയ്റ്റിംഗിനുള്ള വെയിറ്റിംഗ് ഏരിയ ഒന്നും ഉണ്ടാകാറുണ്ടാകില്ല പിന്നെ നല്ല ക്യൂവായിരിക്കും ചിലപ്പോൾ വയ്യാത്ത ആളുകൾ ഉണ്ടാകും അങ്ങനെ ഉള്ള കുറെ ബുദ്ധിമുട്ടുകളും മോശം അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്